ഞങ്ങളുടെ ഗ്രാമത്തില് ഇഷ്ടം പോലെ വായ്പകൾ എടുക്കാറുണ്ട് ഇപ്പോള് കുറേക്കാലം ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനകം നമ്മള്ക്കീ കുടുംബശ്രീ സ്വയ സഹായ സംഘങ്ങളും ഒക്കെ വന്നതുകൊണ്ട് സ്ത്രീകള് പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ വായ്പ എടുക്കാൻ മുന്നേ നിൽക്കാറുള്ളത് സാധാരണക്കാരും അല്ലാത്തവരും എടുക്കുന്നുണ്ട് പൈസ ഉള്ളവരും എടുക്കുന്നുണ്ട് വായ്പ പിന്നെ എല്ലാ ആ എന്താവശ്യത്തിനെന്ന് ചോദിച്ചാല് പിന്നെ ആദ്യമൊക്കെ ചെറിയ ചെറിയ പൈസകള് വായ്പ എടുത്ത് കടം വീട്ടാനും പണയം ഇരിക്കുന്നത് എടുക്കാനും പണത്തിന് പലിശ കൊടുക്കാനും അല്ലേ അസുഖം മരുന്ന് അസുഖം വന്ന് ആശുപത്രിയില് കിടന്നപ്പോള് അതിനായിട്ടും ആശുപത്രിയില്നിന്ന് ഡിസ്ചാർജ് ചെയ്യാനായിട്ടും പിന്നെ കല്യാണ ആവശ്യങ്ങൾക്ക് പല ആവശ്യങ്ങൾക്കും വായ്പയെടുക്കാറുണ്ട് പിന്നെ വായ്പ എടുക്കുന്നത് സമീപിക്കുന്നത് കുടുംബശ്രീയെ തന്നെയാണ് ഇപ്പോള് തൽക്കാലം പിന്നെ ചെറിയ വായ്പകളെല്ലാം കുടുംബശ്രീ വഴിയാണ് അന്നൊക്കെ എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ബാങ്കുകാരൂണ്ട് ബാങ്കിൽനിന്ന് വായ്പ എടുക്കുന്നവര് കുറച്ചാണ് പിന്നെ ഭൂമി പട്ടയമുള്ള ഭൂമിയുള്ളവര് സഹകരണ ബാങ്കിലൊക്കെ ബാങ്കുകളിലൊക്കെ പണയം വച്ച് വലിയ വലിയ തുകകളൊക്കെ എടുക്കാറുണ്ട് പിന്നെ നമ്മളിപ്പോള് മെയിനായിട്ട് കുടുംബശ്രീയാണ് ആശ്രയിക്കുന്നത് പിന്നെ ഇവിടെ സ്വയം സഹായ സംഘം ചാസിൻ്റെ കീഴിലുള്ള സംഘങ്ങളുണ്ട് അവിടുന്നൊക്കെ ലോണെടുക്കാറുണ്ട് ദോഷഫലങ്ങൾ ഉണ്ടോന്ന് ചോദിച്ചാല് പിന്നെ നമ്മുടെ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ പല നമ്മുടെ അത്യാവശ്യം നടക്കണമെങ്കില് ലോൺ എടുത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്നവർക്ക് അതുപോലെ എല്ലാ ആവശ്യത്തിനും ലോൺ എടുക്കുന്നവരുണ്ട് അത് കൃത്യമായി അവര് പറയുന്ന രീതിക്ക് അടയ്ക്കുകയാണെങ്കിൽ ദോഷഫലം ഒന്നുമില്ല പക്ഷേ എടുക്കുന്ന ലോണുകളൊന്നും അടയ്ക്കാതെ ഒരിടത്തുനിന്ന് ലോൺ എടുത്തിട്ടത് അടക്കാതെ അവിടെ പെൻ്റിംഗായി അടുത്ത് വേറൊരു ബാങ്കില് പോയി ലോണെടുക്കും അങ്ങനെ അങ്ങനെ എടുക്കുന്നവർക്ക് മഹാനഷ്ടവും അവര് ചെയ്യുന്നത് വൻ പരാജയവുമാണ് ഒടുക്കം അവർക്ക് അവരുടെ വസ്തു ഒക്കെ നഷ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോവും നിയമമനുസരിച്ചത് അടച്ചുകൊണ്ടിരുന്നില്ലെങ്കില് കുടുംബശ്രീ വഴിയുള്ള ലോണ് വന്നതില്പ്പിന്നെ ഒരുപാട് കാര്യങ്ങള് സ്ത്രീകൾക്കു സാധിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അവരുടെ അനുദിന കാര്യങ്ങൾ നടത്തുന്നതിന് പിന്നെ ആരുടെയും മുമ്പിൽ കൈനീട്ടാതെ ഇപ്പോള് ഈ തൊഴിലുറപ്പൊക്കെ ഉള്ളതുകൊണ്ട് ജോലിക്ക് പോയി മാസംതോറും അത് വീട്ടാനാണെങ്കിലും എല്ലാ കാര്യത്തിനും മുൻകൈയെടുക്കാനും ഒക്കെ ഇപ്പോഴെല്ലാവരും മുൻകൈയെടുത്ത് നിൽക്കുന്നത് ലോൺ എടുക്കാനാണ് കാര്യം ലോണെടുത്താല് അടയ്ക്കാനുള്ള മാർഗമുണ്ട് ഞങ്ങള്ക്ക് തൊഴിലുറപ്പെന്തേലും ചെയ്ത് ഞങ്ങള്ക്കത് അടയ്ക്കാന് പറ്റും എന്നുള്ള ഒരു ഇതില് നല്ലൊരു കാര്യമാണത് ലോണ് ഈ ലോണെടുക്കുന്നത് പിന്നെ വലിയ വലിയ ലോണെടുക്കുന്നവർക്ക് അത് പരാജയമായിരിക്കും അടച്ചില്ലെങ്കില് സമയത്ത് അടയ്ക്കാന് പറ്റിയില്ലെങ്കില് ബാങ്കിൻ്റെ നിയമമനുസരിച്ച് അവര് പൈസ ഈടാക്കും അങ്ങനെയുള്ള ദോഷഫലങ്ങളൊക്കെ ഒരുപാടുണ്ട്